എൻറെ രണ്ടാമത്തെ പ്രൊഡക്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് ക്രീമാണ് ഫേസ് ക്രീം നമ്മള് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കാരണം ഫേസ് ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലതരത്തിലുള്ള കെമിക്കൽ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ക്രീമും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ടും കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കാരണംഎന്തെന്നു വെച്ച് കഴിഞ്ഞാല് അവരൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പിംപിൾസ് മുഖക്കുരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാടുകൾ കാര്യങ്ങൾ ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ് ക്രീം യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുഖത്തിന് ഉണ്ടാക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഇപ്പോൾ പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഭയങ്കരരീതി ഭയങ്കര എന്താ പറയുക നമ്മുടെ മുഖത്ത് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് അനുസരിച്ച് നമ്മുടെ മുഖം ചിലപ്പോൾ ചുവന്നു വരാനോ നമ്മുടെ മുഖം പൊള്ളാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെ ഫേസ് ക്രീം ഒക്കെ യൂസ് ചെയ്യുമ്പോഴും നല്ലതു നോക്കി യൂസ് ചെയ്യുക വേണ്ടി സ് ശ്രമിക്കുക കാരണം പല രീതിയിലുള്ള കെമിക്കൽ ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇപ്പം നല്ലത് ഏതാണെന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഇങ്ങനത്തെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ക്രീമുകൾ കാര്യങ്ങൾ ഒന്നും നമ്മൾ മുഖത്ത് തേക്കാണ്ടിരിക്കുക നമ്മളിപ്പോൾ നാച്ചുറൽ ആയിട്ട്ഇപ്പോൾ കറ്റാർ വാഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുഖത്ത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ കെമിക്കൽ ആയിട്ടുള്ളതൊന്നും നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുക